പിന്നെ ആശയസംവാദത്തിന് മലയാളികൾക്കേറ്റവും പിന്നെ ഉപയോഗപ്രദമാകുന്നത് തീർച്ചയായിട്ടും മലയാള ഭാഷ തന്നെയാണ് അപ്പോള് റേഡിയോയില് പിന്നെ മലയാളം പറയുന്നെന്നു പറഞ്ഞാല് അത് വാർത്ത വായിക്കുന്നത് പല കാര്യങ്ങള് പല പല പരിപാടികളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും മലയാളത്തില് തന്നെയാണ് മലയാള പ്രേക്ഷകരാണ് കൂടുതൽ ഉള്ളത് അതുകൊണ്ടുതന്നെയാണ് ടെലിവിഷനിലും മലയാള വാർത്ത താഴെക്കൂടെ എഴുതി കൊണ്ടുപോവുന്നതുമൊക്കെ നമുക്ക് മലയാളത്തില്തന്നെയാണ് അച്ചടി രീതികളെന്നു പറഞ്ഞാല് തീർച്ചയായും മലയാളം അച്ചടി ഭാഷ ആണ് മലയാളികൾക്ക് കൂടുതൽ മനസിലാകുന്നത് അതുകൊണ്ടാണ് മലയാള ഭാഷ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അതാണ് മനുഷ്യന് കൂടുതൽ നമുക്ക് മാതൃഭാഷയായ മലയാളത്തിൽ പറയുമ്പോഴാണല്ലോ തീർച്ചയായും മലയാളികൾക്ക് മനസിലാകുന്നത് അതുകൊണ്ടുതന്നെയാവണം ടെലിവിഷനിലോ റേഡിയോ അച്ചടി മാധ്യമങ്ങൾ കൂടുതലും മാധ്യമങ്ങൾ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുന്നത് എന്ന് ആണ് എൻ്റെ തോന്നൽ